നിയമപരമായ പ്രസ്നങ്ങൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല അത് ചെയ്തിട്ടുണ്ടെ തന്നെ അത് ശരിയല്ല അതിന് നമ്മൾ ഒന്നുകിൽ പിന്നെ ഇപ്പം അതിന് അധികാരപ്പെട്ട ആൾക്കാർ ഒന്നുകിൽ പോലീസോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ വാർഡിലെ പ്രസി വാർഡ് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡണ്ട് ഇവരുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാകും കാര്യങ്ങൾ ഇപ്പോൾ വേതനത്തിന്റെ കാര്യങ്ങളൊക്കെ വായ്പ എടുക്കാനൊക്കെയാണെങ്കിൽ നമ്മൾ ബാങ്കുകാരെയോ പിന്നെ അതിന്റെ നിയമവശങ്ങൾ ഒരു വക്കീലിനെയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ചെയ്യാറ് ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെയാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജറെ കണ്ട് കാര്യങ്ങളും അതിന്റെ സ്കെച്ച് ഒക്കെയെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സംസാരിക്കാൻ പറ്റുകയുളളു കുടുംബകാര്യങ്ങളും അത് പിന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്തതാണെങ്കിൽ ഒന്നുകിൽ പിന്നെ വാർഡ് അതായത് അവിടുത്തെ മെമ്പറുമായിട്ട് അറിയിക്കും അല്ലെങ്കിൽ അത് അതിലും ഒതുങ്ങാത്തതാണെങ്കിൽ പോലീസുകാരുടെ സഹായം തേടും അല്ലാതെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്താൽ ഇതൊന്നും നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കണം എന്നില്ല അപ്പോൾ നമ്മൾ അതിന് വേണ്ട വേണ്ടപ്പെട്ട ആൾക്കാരെ അല്ലെങ്കിൽ ആ ഒരു ചുമതലയുള്ള ആൾക്കാരെയൊക്കെ പിന്നെ കൂടെയുള്ളതായിരിക്കും അതിൻ്റെ ഒരു ശരി